ഹലോ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ അടുത്തുള്ള കോളേജുകളിലെ വിദ്യാഭ്യാസ നിലവാരത്തെെക്കുറിച്ചിട്ടാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നത്തെ വിദ്യാഭ്യാസം തന്നെ ഒരു കച്ചവടച്ചരക്കാണ് ബിസിനസ്സ് പോലെയാണ് ഇന്നത്തെയൊരു വിദ്യാഭ്യാസം തന്നെ നടക്കുന്നത് പ്രത്യേകിച്ച് ആദ്യം തന്നെ പറയട്ടെ ഇപ്പോൾ സ്കൂൾ ജീവിതത്തിൽ തന്നെ സ്കൂൾ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം തന്നെ പറയുന്നത് ഒരു ബിസിനസ്സുപരമായിട്ടാണ് ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്നത് അപ്പം പിന്നെ കോളേജിലെ വിദ്യാഭ്യാസമെന്നു പറയണത് നിലവാരം കുറഞ്ഞിട്ടാണ് വരുന്നത് അതിൽ ഒട്ടും ഞാനെന്തല്ല തൃപ്തരല്ല തൃപ്തിയില്ല കാരണം സ്കൂളിലെ വിദ്യാഭ്യാസം തന്നെയെന്ന് പറയണത് കച്ചവടമാണ് അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണല്ലോ കോളേജ് വിദ്യാഭ്യാസമെന്ന് പറയുന്നത് അപ്പം അതിനോടത്ര ഞാൻ തൃപ്തയല്ല അത് അതിലും വല്യ സ്കൂളിൽ തന്നെ ചെറിയ ചെറിയ ക്ലാസ്സിൽ തന്നെ വിദ്യാഭ്യാസം എജൂക്കേഷൻ എന്ന് പറയണതൊരു ബിസിനസ്സാണ് അപ്പം അതും കഴിഞ്ഞ് വലിയൊരു അടുത്തൊരു ഘട്ടമെന്ന് പറയണത് കോളേജ് ലൈഫാണ് അപ്പം അതിൽ വിദ്യാഭ്യാസം അതിലും വലിയൊരു ബിസിനസ്സായിട്ടാണ് നടത്തുന്നത് അതൊക്കെത്തന്നെ കുട്ടികൾ ഇന്ന് വഴിതെറ്റാനുള്ള മെയിൻ കാരണം ആ ഒരു കോളേജില വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത് ഒരു തൃപ്തികരമല്ലാത്ത രീതിയിലാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികൾ ഭൂരിഭാഗവും ഭൂരിപക്ഷവും വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾ വഴിതെറ്റിപ്പോകുന്നതിനുള്ള കാരണം വിദ്യാഭ്യാസം തന്നെ നിലവാരമില്ലാത്തതായതുകൊണ്ടാണ് ഒരുപാട് കോഴ്സുകളുണ്ട് ഇന്നത്തെ കാലത്ത് ഒരുപാട് കോഴ്സുകളുണ്ട് കോഴ്സുകളുണ്ടെന്ന് മാത്രമേയുള്ളൂ പക്ഷേ അതിലെ നിലവാരം വളരെ വളരെ കുറവാണ് ഒട്ടും മെച്ചപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് കോളേജിലെ വിദ്യാഭ്യാസമെന്ന് പറയണത് കുട്ടികൾ എന്തിനോ വേണ്ടി പോകുന്നു തിരിച്ചുവരുന്നു അവിടെ എന്തോ ഒരു എൻജോയ്മെൻറിനുവേണ്ടി കുട്ടികൾ പോകുന്നുവെന്ന് മാത്രമാണ് അല്ലാണ്ട് എനിക്ക് വിദ്യാഭ്യാസം എനിക്ക് അറിവ് നേടണം എന്ന ചിന്തയിലല്ല ഇന്നത്തെ കാലത്ത് കുട്ടികൾ കോളേജിൽ വിദ്യാഭ്യാസം നേടാൻ വിദ്യ അഭ്യസിക്കാനായിട്ട്

ഫീലാണ് അവിടെ ചെന്നടിച്ചുപൊളിക്കുക ഫ്രണ്ട്സായിട്ട് നടക്കുക അവിടെ ചുറ്റിക്കറങ്ങുക ക്ലാസ്സ് കട്ട് ചെയ്ത് പോവുക അങ്ങനെയുള്ളൊരു മൈൻഡിലാണ് ഇപ്പോഴത്തെ കോളേജ് വിദ്യാഭ്യാസമെന്ന് പറയുന്നതുതന്നെ അതുകൊണ്ട് ഒട്ടും നിലവാരമില്ല അതിൽ ഞാൻ ഒട്ടും തൃപ്തിയും അല്ലാത്തൊരാളാണ് കാരണം വിദ്യാഭ്യാസമെന്ന് പറയണത് കച്ചവടച്ചരക്കായിട്ടാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ തന്നെ കാണുന്നത് പ്രത്യേകിച്ച് കോളേജിലെ കുട്ടികൾ വഴിതെറ്റാനുള്ള കാരണവും അതുകൊണ്ട് തന്നെയാണ് എൻജോയ് ചെയ്യുക എന്നുള്ള ചിന്തയിലാണ് അല്ലെങ്കിൽ എനിക്കറിവ് നേടണം എനിക്കിതിൽ കൂടുതൽ അറിവ് കിട്ടണം എന്നുള്ള ചിന്തയിലല്ലാ കുട്ടികൾ കോളേജിൽ പോകുന്നത് എൻജോയ് ചെയ്യാൻ വേണ്ടീട്ടാണ് അതുകൊണ്ടുതന്നെയാണ് കുട്ടികൾ ഇന്നത്തെ കുട്ടികൾ ഭൂരിഭാഗവും കുട്ടികൾ നശിച്ചുപോകുന്നത് ലഹരിക്ക് അടിമപ്പെടുന്നതും കൂടുതൽ അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ കോളേജ് വിദ്യാഭ്യാസം വളരെ നിലവാരം കുറഞ്ഞതുമാണ് ഞാനതിൽ തൃപ്തനും തൃപ്തയുമല്ല